വയനാട് ജില്ലയിൽ ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് കണ്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കലാരൂപങ്ങൾന്നൊക്കെ പറയുവാണെങ്കിൽ വയനാട് ജില്ലയിൽ കൂടുതലും പണ്ട് കാലങ്ങൾ മുതലേ ആദിവാസി വിഭാഗത്തിലുള്ളവരൊക്കെയായിരുന്നു ജീവിച്ച് വന്നിരുന്നത് അപ്പോൾ അവർടെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ആ ലാഗ്വേജിൽ എന്താ പറയാ പാട്ട് പിന്നെ അവരുടെ നൃത്ത രൂപങ്ങൾ പിന്നെ അങ്ങനുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ കലയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആ രീതിയൊക്കെ അവർ അവരുടെ കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കേം അവരതിൽ സ്കൂൾലക്കെ പോയി ഇപ്പോൾ സ്കൂളിൽ വിദ്യാഭ്യാസമൊക്കെ എല്ലാ കുട്ടികൾക്കും വന്നതോടു കൂടി സ്കൂളിലക്കെ പോയിട്ട് അവരാ കലാരൂപങ്ങൾ കാഴ്ചവെക്കേം അപ്പോൾ അവർക്ക് പുറത്തേക്കൊക്കെ പൂവാനുള്ള അവസരങ്ങൾ സ്കൂളിൽ നിന്ന് സംഘടിപ്പിച്ച് കൊടുക്കേം ആ കലാരൂപം എല്ലാവരിലേക്കും എത്തുന്നതൊക്കെയാണ് നമ്മളിപ്പോൾ സാധാരണ കാണാറ് പിന്നേ എന്താ പറയാ കരകൗശല വസ്തുക്കളായിട്ട് പണ്ട് മുതലേ വയനാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പരമ്പ് കൊട്ട പിന്നെ മുറം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് അതൊക്കെ വയനാട്ടിൽ വന്നിട്ടുള്ള സാധനങ്ങളായിരുന്നു അപ്പോൾ ഇതക്കെ പണ്ടുള്ളവർ എന്താ പറയാ എങ്ങനെ ഉണ്ടാക്കുന്നതെങ്ങനെന്നുള്ളതൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് പണ്ടത്തെ പ്രായമായവരൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരത് പറഞ്ഞ് കൊടുക്കേം ഞങ്ങൾ കുട്ടികളത് പഠിക്കേം ശേഷം അത് ഉണ്ടാക്കുന്നതെങ്ങനെന്നക്കെ പുറമെയൊക്കെ അത് വിൽക്കാനൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടിപ്പോൾ അങ്ങനെയാണ് വയനാട്ടിൽ കൂടുതലായിട്ടും നമ്മൾ കണ്ടു വരുന്നത്